അങ്ങനെ ഒരു പാട് വിനോദ സഞ്ചാരികൾ കാണുന്നുണ്ട് അപ്പം അതിൽ കൂടുതൽ സൂക്ഷിച്ചറിയുമ്പോൾ തന്നെ അവർ സംസാരിക്കാറുണ്ട് അവർ നമ്മുടെയടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെയുള്ള നല്ല സ്പേസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അവരുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ ഗോട്ട് ഇറ്റ് സോ ടോപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് അടങ്ങി ജീവിക്കുന്നതിനെക്കാളും ബെറ്ററാണ് നമ്മളീ ലോകം ചുറ്റുക എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുക എല്ലാ ടൂറിസ്റ്റ് മേഖലയും കാണുക അതൊരു സൻ പ്രത്യേകമൊരു ഫീലിംഗ് തന്നെയാണ് അവർ നമ്മുടെയടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എതൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് നിങ്ങൾക്ക് പരിചയം ഉള്ള സ്ഥലം കുറച്ച് ടോപ്പായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണുന്നത് തന്നെ നല്ല നല്ല സ്ഥലങ്ങളാണ് എന്നിട്ട് നമ്മുടെയടുത്ത് ചോദിക്കും ഇനിയുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും അവരിങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ് ഓരോന്നും തേടി തേടി സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് അവർ അവർക്ക് പറയാനുള്ളത് തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ട കാഴ്ചകൾ അവർ ചെന്ന സ്ഥലങ്ങൾ അത് ഫോട്ടോസിങ്ങനെ കാണിച്ച് തരും എന്നിട്ടവർ നമ്മളുടെ അടുത്ത് ചോദിക്കും ഇത് എവിടുത്തെ സ്ഥലങ്ങളാണ് ഇനി എവിടെയാണുള്ളത് ഇന്ന സ്ഥലത്തേക്ക് എവിടെയാണ് പോകേ ണ്ടത് അവര് നമ്മളെ അവര് നമ്മളെ പഠിച്ചതീന്നല്ല നമുക്ക് ഉൾകൊള്ളാൻ കഴിയുന്നു വച്ചിട്ടുണ്ടെങ്കി നമുക്ക് ഇങ്ങനെ കറങ്ങി എല്ലാ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തില് സഞ്ചരിക്കുക എന്നത് തന്നാണ്